ആ അതെ സെൻറ് മേരിസ് സെൻറ് മേരീസ് ബേക്കറി ആണോ സെൻറ് മേരീസ് ബേക്കറി ആണോ ഞാന് ഇവിടെ അടുത്തുനിന്നു വിളിക്കുകയാണ് അതിൻ്റെ പ്രോപ്രൈറ്റർ ആണോ ഓണർ ആണോ ഇത് ഓണർ ആണോ ഫോൺ എടുത്തിരിക്കുന്നത് ആ ആ അതെ അല്ലേ ആ എനിക്കൊരു കേക്ക് വേണമായിരുന്നു അപ്പോള് അതിൻ്റെ ഡീറ്റൈൽസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഹലോ അവിടെ അല്ല എനിക്ക് നല്ല കേക്കാണ് വേണ്ടത് മറ്റെ ബട്ടർ സ്ക്കോച്ച് റെഡ് വെൽവെറ്റ് ബ്ലാക്ക് ഫോറെസ്റ്റ് അതൊക്കെയുണ്ടോ നമുക്ക് നമുക്ക് നമുക്ക് ബട്ടർ സ്കോച്ച് ഒരു കിലോ കേക്കിന് എത്ര രൂപയാകും ആ അത്രയെ ആവുകയുള്ളൂ അല്ലെ ആ ബർത്ഡേക്കാണ് അത് വേണ്ട ആ അപ്പം ബട്ടർ സ്ക്കോച്ച് മതി ആ ഒരു കിലോ കേക്ക് ആ നിങ്ങള്ക്ക് ഹോം ഡെലിവറി ഉണ്ടല്ലോ അല്ലെ ആ ഉവ്വുവ ആ അപ്പോള് എത്രയാണെന്ന് ഒരു ബില് കൊടുത്തുവിട്ടാല് മതി ഞാന് ഇങ്ങോട്ട് വരുന്നയാളുടെ കയ്യില് പൈസ കൊടുത്തുവിട്ടേക്കാം ആ ഞാന് അഡ്രസ്സും ലൊക്കേഷനും കൂടെ അങ്ങോട്ട് അയച്ചേക്കാം ആ നമുക്ക് എപ്പോഴത്തേക്ക് കിട്ടും ഒരു ഇന്നൊരു നാല് മണിയൊക്കെയാകുമ്പോഴത്തേക്കും തരാൻ പറ്റുമോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോള് ഞാൻ ലൊക്കേഷൻ വാട്സപ്പിൽ ഇട്ടേക്കാം അപ്പോള് സാധനം കൊടുത്തയാള് വന്നുകഴിയുമ്പോള് ഞാൻ പൈസ കൊടുത്തേക്കാം കേട്ടോ എന്തോ